എനിക്ക് മലയാളഭാഷയിൽ നിന്നും അങ്ങനെയൊരു ഇത് തോന്നിയിട്ടില്ല നമ്മുടെ മാതൃഭാഷയാണ് മലയാളം അതെന്നും മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് സംസാരിക്കാനുമാണ് ഞാനാഗ്രഹിക്കുന്നത് ലോകമെമ്പാടുമുള്ള ആൾക്കാര് ഒരുപാട് പേര് മലയാളം പല രീതികളില് സംസാരിക്കുന്നു അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കെപ്പോഴും മാതൃഭാഷയിൽ നിന്നും നല്ല നല്ല അനുഭവമാണുണ്ടായിട്ടുള്ളത് പിന്നെ നമുക്കെന്ന് പറയുമ്പോള് പുറത്ത് നമ്മള് നമ്മുടെ നാട്ടില് നമുക്ക് മലയാളം സംസാരിക്കാം പക്ഷെ നമ്മള് പുറത്തെങ്ങോട്ടെങ്കിലും പോയിക്കഴിഞ്ഞാല് നമുക്ക് മലയാളമല്ലാതെ വേറെ ലാംഗ്വേജസുമെല്ലാം പഠിക്കേണ്ടി വരും അപ്പോള് നമുക്ക് മലയാളം മാത്രം കൊണ്ടിരുന്നിട്ട് ഇന്നത്തെക്കാലത്ത് കാര്യമില്ല നമ്മള് എല്ലാം പഠിക്കണം ഇംഗ്ലീഷാണെങ്കിലും ഹിന്ദിയാണെങ്കിലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോള് ഓരോ ലാംഗ്വേജാണ് അപ്പം നമ്മുടെ മലയാളം കൊണ്ട് പറ്റില്ല അപ്പം അപ്പം ഞാനൊരു വട്ടമാണെങ്കില് എവിടെയാണ് തമിഴ്നാട് പോയായിരുന്നു അപ്പോള് അവർക്ക് നമ്മുടെ മലയാളം ചിലപ്പം മനസ്സിലാകും അവര് തമിഴും കൂടെ കലർന്ന രീതിയിലാണ് അപ്പോള് നമ്മള് ആ തമിഴില്ലാതെ നമുക്ക് മനസ്സിലാകും പക്ഷെ നമുക്ക് കേട്ടാല് മനസ്സിലാകും നമുക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റുകയില്ല അതേപോലെ ഇംഗ്ലീഷാണെങ്കിലും അങ്ങനെയാണ് ഈ മലയാളികളുടെ പ്രശ്നമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവർക്ക് കേള്ക്കുമ്പോള് മനസിലാകും പക്ഷേ നമുക്ക് അങ്ങോട്ട് പറയാനുള്ള ആ ഒരു ഇതില്ല അപ്പോള് എപ്പോഴും നമ്മുടെ മാതൃഭാഷയെ അത് നമ്മുടെയൊരു മാതൃഭാഷയാണ് നമ്മുടെ മലയാളം അപ്പോള് മലയാളവും നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ബാക്കിയെല്ലാം നമ്മള് നന്നായിട്ട് അറിഞ്ഞിരുന്നാലേ നമുക്ക് മുന്നോട്ട് പറ്റുകയുള്ളൂ പണ്ടത്തെ കാലഘട്ടത്തില് അങ്ങനെയൊന്നുമില്ല മലയാളം മാത്രം മതിയായിരുന്നു അന്ന് വിദ്യാഭ്യാസവുമില്ല ഇന്നത്തെപ്പോലെ അപ്പോള് അന്നത്തെ ആ വിദ്യാഭ്യാസത്തിന് ഇതൊക്കെ മതിയായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് എല്ലാം പഠിച്ചാലേ നമുക്ക് നല്ലയൊരു ജോലിയാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ അപ്പം എപ്പോഴും മലയാളം മാത്രം ഇന്നത്തെക്കാലത്ത് പറ്റില്ല എല്ലാം നമ്മള് പഠിച്ചേ പറ്റുകയുള്ളൂ ഇനി മുന്നോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇതിലും കൂടുതലാണ് ഇപ്പോള്ത്തന്നെ ഒരുപാട് കാര്യങ്ങളിലുണ്ട് നമുക്കോരോ പഠനത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഓരോ ലാംഗ്വേജുകളാണ് എവിടെ പഠിക്കാൻ പോകണമെങ്കിലും ഇപ്പം പത്ത് കഴിഞ്ഞാല് ഫുള് ഇംഗ്ലീഷാണ് മലയാളം പിന്നെയില്ല നമ്മള് ഫുൾ ഇംഗ്ലീഷിലേക്ക് കടക്കുകയാണ് അപ്പോള് എപ്പോഴും പിന്നെ നമ്മുടെ മാതൃഭാഷ എപ്പോഴും മലയാളം തന്നെയാണ് അതുകൊണ്ട് അതെപ്പോഴും നമ്മുടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് അതെപ്പോഴും നമ്മുടെ ഒരു ഇതായിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ളൊരിതാണ് പക്ഷേ ഇന്നത്തെ ഇതിനകത്ത് നമ്മളെല്ലാം പഠിച്ചേ പറ്റുകയുള്ളൂ അപ്പോള് നമുക്ക് ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം നന്നായി ഹിന്ദി അറിഞ്ഞിരിക്കണം ഏറ്റവും കൂടുതൽ ഇന്നത്തെക്കാലത്ത് ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നേ പറ്റുകയുള്ളൂ ഇംഗ്ലീഷും കൂടെ അറിയാതെ നമുക്ക് ഇന്ന് സമൂഹത്തില് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്ക് ആയിരിക്കുകയാണ് ഇപ്പം പക്ഷെ നമ്മുടെ മാതൃഭാഷ മലയാളം തന്നെയാണ്